പക്ഷികളുടെ കൂട് നിർമ്മാണം നിരീക്ഷിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ട്ടം കാരണം അവർ ഓരോ ഓരോ ഇലങ്ങില് ഓരോ നാരുകളും അതുപോലെ ചെറിയ ചെറിയ ചെറിയ നാരുകളൊക്കെ കൊണ്ട് വന്ന് ഓരോ പ്രാവശ്യം ഓരോ ഓരോ ഓരോ പ്രാവശ്യം ഓരോ വട്ടം ഇങ്ങനെ ഓരോ കുഞ്ഞി കുഞ്ഞി ക കൊണ്ട് വന്ന് കൊണ്ട് വന്ന് അവരുടെ ചെറിയൊരു കൂട് നിർമിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ്